രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടിയിട്ട് മതത്തെ ഉപയോഗിക്കുന്നവരും ഇന്നത്തെ കാലത്തുണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടിയിട്ട് അപ്പം ഒരു പ്രത്യേക മത വിശ്വാസത്തെ എതിർക്കയോ അല്ലെങ്കിൽ അവരുടെ രീതികളെ കുറിച്ചു പരസ്യമായി വിമർശിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് ഉണ്ട് അവരുടെയൊക്കെ മോട്ടീവെന്നു പറയുന്നത് അവർക്ക് അവരുടെ ആ ഒരു രാഷ്ട്രീയ ഉന്നമനം മാത്രം അവരുടെ കാര്യം മാത്രമേ അവർ ലക്ഷ്യം വെക്കുന്നുള്ളു ഇതിലെ ഇവിടെ ഏതു കണ്ടാലും ഒരു വർഗ്ഗീയ മനോഭാവം വെച്ചു പുലർത്തുന്ന അവസ്ഥ അങ്ങനെയുള്ളവർക്കും ഇന്നുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ രാഷ്ട്ര രാഷ്ട്രീയത്തിലും എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല എങ്കിലും ആ ഒരു ചിന്താഗതിക്കാരിലും ഉണ്ട് പ്രവർത്തനങ്ങളിൽ അങ്ങനെയുള്ള ചിന്താഗതിക്കാരുള്ളവരും ഉണ്ട് ഇപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റി ചിന്തിക്കേണ്ട സമയമൊക്കെ ആയിരിക്കയാണ് ഇപ്പോൾ നമ്മളേതു മതത്തെ വിശ്വസിക്കുന്നവരായാലും മനുഷ്യരെ ആ ഒരു സമൂഹ നന്മയ്ക്കു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും പറയാനായിട്ടും ഒക്കെ ആ ഉള്ള ഒരു ആർജവമാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളൊക്കെ കാണിക്കേണ്ടത് എങ്കിലും അതല്ലാതെയൊക്കെ സംഭവങ്ങളൊക്കുന്നുണ്ട് പക്ഷെ എല്ലാം എല്ലാത്തിലും അവർ അവരവരുടെ നിലനിൽപ്പു മാത്രമേ നോക്കുന്നുള്ളു മറ്റുള്ളവരുടെ അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയോ മറ്റുള്ളവരെങ്ങനെ ആയിരിക്കുന്നെന്നോ ഒരു സമൂഹ നന്മ ആഗ്രഹിക്കുന്നില്ല അവർ വ്യക്തിപരമായ നന്മ മാത്രം ആഗ്രഹിക്കുമ്പോഴാണ് ആ ഒരു കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുമ്പോഴത്തേക്കാണ് അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാകുന്നത്